ഞാൻ വായിച്ചിട്ടുള്ള അധികവും പുസ്തകം മലയാളം തന്നെ ആണ് മലയാളത്തിൽ ഉള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം ഇംഗ്ലീഷ് ബുക്സ് ഹിന്ദി ബുക്സൊന്നും ഞാനധികം വായിച്ചിട്ടില്ല ഇനി എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കൂൾ പഠിക്കുന്ന കാലത്തോ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സെക്കൻഡ് ലാങ്ഗ്വേജ് ഹിന്ദിയായിരുന്നു അപ്പോൾ ഹിന്ദി പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ പറയണ ബുക്കൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് ഈദ്ഗാഹ് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ടായിരുന്നു ആ കഥയിൽ ഒരു കുട്ടീനെ കുറിച്ചു ഒരു പറഞ്ഞിട്ടുള്ളത് ആ കുട്ടീൻ്റെ ദരിദ്ര പൂർണ്ണമായിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച് അപ്പോൾ ഈദിൻ്റെ സമയത്ത് ആ കുട്ടി ഈദിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിലേക്കു പോകുമ്പോൾ അവിടെ കുറേ വിൽപ്പന സാധനങ്ങളുണ്ട് അവിടെ നോക്കിയാൽ കുട്ടി ആഗ്രഹിക്കും അതു വാങ്ങിക്കണമെന്ന് പക്ഷെ ആ കുട്ടിക്കു വാങ്ങാനുള്ളൊരു പൈസയുണ്ടാകില്ല അതുകൊണ്ട് ആ കുട്ടി ഒന്നും വാങ്ങിക്കില്ല പകരം ഒരു തവിയാണ് ആ കുട്ടി വാങ്ങിക്കുക എന്നിട്ട് അതിൻറ്റെ ഉമ്മൂമ്മാക്ക് കൊണ്ടു കൊടുക്കും അത് ഒരു കവിത ഒരു കഥയായിരുന്നു കവിതയല്ല കഥയായിരുന്നു ആ കഥയെനിക്ക് വളരെയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു കഥയാണ് ആ ദരിദ്ര പൂർണ്ണമായിട്ടുള്ള സാഹചര്യത്തിൽ ആ കുട്ടി ഒരുക്കൂട്ടി വെച്ചിട്ടുള്ള പൈസയും കൊണ്ട് അതതിൻറ്റെ കാര്യങ്ങൾക്കു കൂടി ഉപയോഗിക്കാതെ അതതിൻറ്റെ ഉമ്മൂമ്മാക്ക് വേണ്ടി വാങ്ങിച്ചു അതുപോലെതന്നെ വേറൊരു കഥയുണ്ടായിരുന്നു സക്ക്ഭായിട കഥ പക്ഷെ ഞാൻ കൂടുതലായിട്ട് ഹിന്ദി പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല മലയാളം തന്നെയാണ് വായിച്ചിട്ടുള്ളത് മലയാളം ആരുടെയെങ്കിലും സജെസ്റ്റ് ചെയ്യാൻ പറയാണെങ്കിൽ ഞാൻ മാമ്പഴം എന്ന ഒരു കവിതയുണ്ട് ആ കവിത എല്ലാവരും വായിക്കേണ്ട ഒരു കവിതയാണ് അപ്പോൾ എല്ലാവരും സജെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ സജെസ്റ്റ് ചെയ്യാറുള്ളത് മാമ്പഴം എന്ന കവിത അതു പോലെ കഥ സജെസ്റ്റ് ചെയ്യാൻ പറയാണെങ്കിൽ ഞാൻ പറയും ഇന്റുപ്പുപ്പാക്ക് ഒരാനണ്ടാര്ന്നു എന്നുള്ള കഥ ബഷീർ എഴുതിയ കഥയാണ് അത് ഞാൻ പറയും പിന്നെ ഈ അടുത്തു ഫെയ്മസായിട്ടുള്ള റാം കെയർ ഓഫ് ആനന്ദി ഒരിക്കൽ കെ മോഹനനെഴുതിയിട്ടുള്ള ഒരിക്കൽ എന്ന കഥ പിന്നെ പ്രേമ നഗരം ഇതൊക്കെ എല്ലാവരും വായിക്കണം എന്നു ഞാനാഗ്രഹിക്കുന്ന ഒരു ബുക്ക്സാണ് അതുപോലെ തന്നെ നീർമാദളം പൂത്തകാലം അതൊക്കെ